ഇതാരാണ്

അതെ ഞാൻ ഇപ്പോൾ ഫ്രീ ആണ് എനിക്കിപ്പോൾ ഒരു എൺപത്തിനാല് വയസ്സുണ്ട് ആ എനിക്ക് വേ മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല അല്ലാതെ പ്രായത്തിന്റേത് ആയിട്ടുള്ള ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് ഷുഗർ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ട് അല്ലാതെ ആ അല്ലാതെ മറ്റ് വേറെ അസുഖങ്ങളൊന്നും ഇല്ല ആ ഇടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട് ചെക്ക് ചെയ്ത് അതിന് കണ്ടിന്യൂസ് ആയിട്ട് മരുന്നൊക്കെ കഴിക്കുന്നതാണ് ആ അല്ലാതെ ആ ആ ഇൻസുലിൻ ഒന്നും എടുത്ത് എടുക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ പ്രോപ്പർ ആയിട്ട് മരുന്ന് കഴിച്ച് അത്ര ഇതായിട്ട് മിനിമം ഒക്കെ ആയിട്ടൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല

കൊണ്ട് പോവും മോൻ വണ്ടി ആ ആ പള്ളിയിൽ ആഴ്ച ഒരുദിവസം പള്ളി ആ ആ അങ്ങനെയൊക്കെ പോവാം നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ അടച്ച് മൂടി ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് അസുഖങ്ങളൊക്കെ ഒത്തിരി അങ്ങ് കൂടത്തല്ലേ ഉള്ളൂ പുറത്തൊക്കെ ഇറങ്ങിയാൽ ആൾക്കാരുമായിമായിട്ടൊക്കെ സഹകരിച്ച് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഒക്കെ ഇതാവുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് വരില്ലേ അതുകൊണ്ട് അങ്ങനെ ഇട ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിലൊക്കെ പോവാ പോവാറുണ്ട് അത് മോൻ മോന് വണ്ടിയുണ്ട് അപ്പം വണ്ടിയിലാണ് പോവുന്നത്

ഓ അങ്ങനത്തെ അങ്ങനെ ബുദ്ധിമുട്ട് ഒന്നുമില്ല അല്ലാതെ എന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കറക്റ്റ് ആയിട്ട് മോൻ ശ്രദ്ധിക്കുന്നുണ്ട് മരുമോൾ ആണെങ്കിലും കുഴപ്പമില്ല നല്ല ഇതാണ് ഇതാണ്

ഇപ്പം ഹസ്ബൻഡ് ചെറുതായിട്ടൊക്കെ കൃഷി ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ചിലപ്പം ഞാനും ഒന്ന് ഹെൽപ്പ് ഹെൽപ്പ് ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ പിന്നെ കൊച്ചു പിള്ളേർ ഉള്ളതുകൊണ്ട് പിന്നെ ആ ഒരു സമയം സ്കൂൾ ഒക്കെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒക്കെ കൂടെ കുറച്ച് നേരം ഒക്കെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഇരുന്ന് അങ്ങനെ കുറേയൊക്കെ സമയങ്ങൾ സ്പെൻഡ് ചെയ്യാറുണ്ട് ഇല്ല കുടുംബശ്രീക്ക് ഇപ്പം തൽക്കാലം ഞാനില്ല മകളുണ്ട് അല്ലാതെ ഒന്നും പ്രത്യേകിച്ച് ഇല്ല പിന്നെ ചെറുതായിട്ടൊക്കെ വായിക്കുവൊക്കെ ചെയ്യും അതൊക്കെയേ ഉള്ളൂ പിന്നെ

എനിക്ക് ഒരു എന്ന് ആ വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി പ്രായത്തിന്റേതായിട്ടുള്ള ഈ ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ഈ ഇടയ്ക്ക് കുറച്ച് ദേഷ്യം ഒക്കെ ഉണ്ട് അത് പിന്നെ അതൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കൺട്രോൾ ഒക്കെ ചെയ്തൊക്കെ പോകുന്നു ആ വീട്ടിൽ ഉള്ളവർ ഒന്നും വലിയ പ്രശ്നക്കാരൊന്നും അല്ല എല്ലാം നമ്മുടെ സാഹചര്യത്തിനൊക്കെ ഒത്ത് ഒക്കെ പോകുന്ന ആൾക്കാർ തന്നെയാണ് അല്ലാതെ പ്രേ പ്രത്യേകിച്ച് ഒന്നും കുഴപ്പൊന്നുമില്ല പിന്നെ

എടാ കട്ട് ചെയ്തേ